ചിത്രകല പോലുള്ള കലകൾ കുട്ടികൾക്ക് ആരംഭിക്കാനുള്ള ശരിയായ വയസ്സെന്ന് പറയുന്നത് ഒരു നാലര വയസ്സ് നാല് ഫോർ ടു ഫൈവ് വയസ്സ് മുതലൊക്കെയാണ് അംഗൻവാടിയിലൊക്കെ പിള്ളേരെ ചേർക്കത്തില്ലേ ആ ടൈം മുതലേ അവർക്ക് അല്ലെങ്കില് പിള്ളേർക്ക് ഓൾറെഡി കളേഴ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ ആ ടൈം മുതലേ അവർക്ക് ഇങ്ങനെ പടം വരയ്ക്കാനുള്ള ബുക്കുകളും കളർ പെൻസിൽസും അവ കൊടുക്കുന്നതും അതിലൂടെ അവർക്ക് കലാപരമായിട്ടുള്ള ചിത്രരചനായിട്ടുള്ള കഴിവ് വർദ്ധിപ്പിക്കാനും വളരെ അനുകൂലമാണ് അങ്ങനെ നമുക്ക് കുട്ടികളിലുള്ള ചിത്രരചന കഴിവിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും പിന്നെ കുട്ടികളിപ്പം ഇപ്പത്തെ തലമുറ വരുവാണെങ്കില് നമ്മള് നോക്കുവാണെങ്കില് ഈ കുഞ്ഞു പിള്ളേര് കൂടുതൽ ടൈമിലും ഫോണിലൊക്കെയാണ് ചിലവഴിക്കുന്ന ഗെയിമ്സും കാര്യങ്ങളൊക്കെ അതിനു പകരം അവരുടെ മാതാപിതാക്കൾക്ക് ഇതുപോലെ ബുക്കുകളും കളർ പെൻസിൽസും ഒക്കെ കൊടുക്കുവാണെങ്കിൽ അതിലൂടെ അവർക്ക് അവരുടെ ഒരു ടാലന്റ് ഒരു ഡ്രോയിങ്ങിലെ ടാലൻ്ററ്റവർക്ക് വളർത്തിയെടുക്കാനും അതിലൂടെ പിള്ളേർക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം കൂടി എടുക്കാനും നമുക്ക് സാധിക്കും